വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങൾ യാഥാര്ത്ഥ്യവും തമ്മിലൊത്തിരി വ്യത്യാസം ഉണ്ട് കാരണം ഇപ്പം വാര്ത്ത ഒരു വാക്ക് ഒരു സംഭവം ഉണ്ടായാൽ അത് അവതരിപ്പിക്കുന്ന ആളും ഈ റിയാലിറ്റി ആ സംഭവത്തിൻ്റെ റിയാലിറ്റി എന്താണോ അത് നമ്മൾ ചിലപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും അത് ചില വ്യക്തികളെ ആശ്രയിച്ചായിരിക്കും അവരുടെ ചിന്തകളെ ആശ്രയിച്ചായിരിക്കും അവരുടെ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ആ വാർത്തയുടെ സ്വഭാവമോ രീതി ശൈലിയൊക്കെ വ്യത്യാസപ്പെടാറുണ്ട് ചിലപ്പം യാഥാര്ത്ഥ്യത്തിൽ നടന്ന് എന്താണോ അതായിരിക്കില്ല ഒരു വാർത്തയിലേക്കാ സംഭവത്തെ കൊണ്ട് വരുമ്പോൾ അതിന്റെ പരിമിത ഫലമെന്താണോ അല്ലെങ്കിൽ അതു മൂലം ഉണ്ടായാൽ സമൂഹത്തിലുണ്ടായ വ്യത്യാസങ്ങളെന്താണോ അതൊന്നും ആയിരിക്കില്ല റിയാലിറ്റി വരുമ്പം വാര്ത്തയിൽ അവതരിപ്പിക്കുന്നത് പിന്നെ വ്യാജ വാർത്തകൾ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് ഇപ്പം ഒരു കാര്യം അറിയാതെ അവരിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞു ഇതാണ് പൊതു സമൂഹത്തിൻ്റെ വീക്ഷണം എന്ന ധാരണയിൽ നിന്നു കൊണ്ട് കാര്യങ്ങളെപ്പറ്റി പറയുക അതിനെപ്പറ്റി ചർച്ച ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പം ഒരു പ്രശ്നം ഉണ്ടായി അത് വാർത്തയിൽ കാണിക്കുന്നു അതിൻ്റെ റ് യാ യഥാർത്ഥത്തിൽ നടന്ന സംഭവമല്ല തെറ്റായിട്ടുള്ളൊരു കാര്യത്തെ വ്യഖ്യാനിക്കുമ്പം അത് സമൂഹത്തെ അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടായ ആളെ അതെത്ര മാത്രം ബാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് ഒത്തിരിയേറെയുണ്ട് ഇപ്പം സപ്പോസ് ഒരെക്സാമ്പിൾ പറയുകയാണ് ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മയക്ക് മരുന്ന് കഞ്ചാവ് അതിൻ്റെ ഉപയോഗം അത് ഇന് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിലത് യുവജനങ്ങൾ എത്ര മാത്രം ബാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതൊത്തിരിയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടിന്നത്തെ സമൂഹത്തെ

അതല്ല റിയാലിറ്റി ഇല് ആ പിള്ളാരോട് അല്ലെങ്കിൽ ആ കുട്ടികളോടൊന്ന് ബന്ധപ്പെടുമ്പോൾ അവരോടൊന്ന് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒന്ന് കേൾക്കാൻ റെഡിയാകുമ്പം അവരെന്ത് കൊണ്ടതിലേക്കെത്തിപ്പെട്ടു അല്ലെങ്കിലിങ്ങനെ ഉണ്ടാകാനുള്ള കാര്യം എന്താ അങ്ങനെയുള്ള യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ അത് ആ കുട്ടിയുടെ മാനസിക നില അല്ലെങ്കിൽ അന്നേരത്തെ ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ ഒരു സൊസൈറ്റി ഇതിനെ നോക്കി കാണുമ്പോൾ അല്ലെങ്കിലൊരു മാധ്യമം അല്ലെങ്കിലൊരു വാർത്തയിൽ ഇത് വരുമ്പോഴത്തേക്ക് എന്താണ് ആ കുട്ടി കഞ്ചാവിനഡിക്റ്റഡാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തില് പിള്ളേരെ ഹോസ്റ്റലിലയച്ച് പഠിപ്പിക്കുന്ന പേരന്റ്സ് ശ്രദ്ധിക്കണം അതല്ല അവിടെ യാഥാർത്ഥ്യം ആ കുട്ടിയൊന്ന് കേൾക്കാൻ തയ്യാറാകുക ആ കുട്ടിയോടൊന്ന് മിണ്ടുക അവന്റെ പ്രോബ്ലം എന്ത് ഏതവസ്ഥയിലീ സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടു ഇനിയെങ്ങനെ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നു ചോദിച്ചാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാ ഒരു കുട്ടിയുടെ മാത്രം കാര്യമായിരിക്കും പറയുന്നത് പക്ഷേ അത് മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയാണ് മോശം ആയിട്ട് ബാധിക്കുന്നത് അപ്പം ഇത് ദോഷകരമായിട്ട് തന്നെ സമൂഹത്തെ ബാധിക്കുന്നെന്ന് വേണം പറയാന്